പ്രയോജനപ്പെട്ട സർക്കാർ പദ്ധതികൾ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാന മന്ത്രിയുടെ ആവാസ് യോജന എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനകരമാണ് അതേപോലെ തന്നെ സർക്കാരിൻ്റെ കുടിവെള്ള പദ്ധതികൾ കുടിവെള്ള പദ്ധതികളെല്ലാം വളരെ അധികം പ്രാധാന്യം ഉള്ളത് തന്നെയാണ് ഒരുപാട് പേർക്ക് അത് സഹായകരവും ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ പൈപ്പ് കണക്ഷൻ എല്ലാവരും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുടിവെള്ള പ്രശ്നം ഭാവിയിൽ ഉണ്ടാവില്ല രൂക്ഷമാകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതേപോലെ തന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുന്ന പദ്ധതികൾ പിന്നെ അതേപോലെ തന്നെ ഹെൽത്ത് നമ്മളുടെ നമ്മളുടെ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എല്ലാം നടന്ന് പോരുന്നുണ്ട് അത് എല്ലാവർക്കും പ്രയോജനകരം തന്നെയാണ് വീട് ഇല്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മളുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാത്തിനും നമുക്ക് പ്രയോജനകരമായ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടത്തി വരുന്നുണ്ട് കേരള സർക്കാരും നടത്തി വരുന്നുണ്ട്